എൻറ്റൊരവിസ്മരണീയമായ ഒരു പെർഫോമൻസെന്നു പറയുമ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കോളേജ് ഡേയ്ക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചായിരുന്നു ഇപ്പം ഇറങ്ങിയ ഒരു പുതിയ സിനിമയുണ്ട് ആവേശമെന്നു പറഞ്ഞ സിനിമയിലെ അർമാദോ എന്നു പറഞ്ഞൊരു സോങ്ങായിരുന്നു അത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും സ്നേഹയും സ്നേഹയാണ് എനിക്ക് കുറച്ചു വേണ്ടപ്പെട്ടൊരു കുട്ടി അപ്പോൾ അവരെല്ലാം അവരുമായിട്ടു ചേർന്നൊരു ഒരു ഡാൻസ് ഞങ്ങൾ റെഡിയാക്കി തീവ്രമായ പരിശീലനമായിരുന്നു ഒരു ഇരുപത് ദിവസത്തോളം ഞങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു ഈ പ്രോഗ്രാമിനു വേണ്ടി മാത്രം അങ്ങനെ ഞങ്ങൾ ഈ പ്രോഗ്രാം കോളേജ് ഡേയുടെ അന്ന് അവതരിപ്പിച്ച് അതൊരു അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു അന്ന് ഞങ്ങൾ രണ്ട് സ്ക്രീനിങ്ങ് കഴിഞ്ഞ് സ്ക്രീനിങ്ങിൻ്റെ ഇടയിൽ സ്ക്രീനിങ്ങിരുന്ന ജഡ്ജസിന് ഈ പ്രോഗ്രാം അ അതിയായി ഇഷ്ടപ്പെട്ടു ഈ പ്രോഗ്രാമിനെ പറ്റി നല്ല കമൻ്റ്സൊക്കെ അവർ പറഞ്ഞു ഇനി വരുന്ന ഒരു വിശേഷപ്പെട്ട ദിവസത്തിന് ഇന്നാ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചുക്കൂടെ എന്ന് ഇങ്ങോട്ട് ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു ഈ അർമാദോ എന്ന സോങ് അത്രത്തോളം കോളേജ് ഡേയ്ക്ക് ഒരു മുതൽക്കൂട്ടായെന്നു ഞാൻ അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ സ്റ്റേജിൽ കയറി ഞങ്ങൾ പെർഫോം ചെയ്തത് ഓഡിയൻസായിട്ടിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവരത് ആർത്ത് ഉത്സ ഉൽ ഉല്ലസിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു പോയി അത്രത്തോളം അവർ എൻജോയ് ചെയ്തു ആ ദിവസം ഈ പാട്ടും ഞങ്ങളുടെ ഡാൻസ് ഇതാണ് എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യമായിട്ട് ഏറ്റവും അവിസ്മരണീയമായ എൻ്റെ നൃത്താവതരണം ഈ പരിപാടിക്കാണ്